അത്യാവശ്യം വേണ്ട ആപ്പുകൾ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ബാങ്കിങ്ങ് ആവശ്യങ്ങൾക്ക് അതുപോലെ സർക്കാർ സേവനങ്ങൾക്ക് അത് അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങള് മനസ്സിലാക്കുന്നതിനുള്ള ആപ്പുകള് ഗൂഗിള് പിന്നെ വാർത്താ ചാനലുകളുള്ള ആപ്പുകള് അതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതു വളരെ അത് വേണ്ട ആപ്പുകള് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അത് നമുക്ക് ഉപദ്രവം ഉണ്ടാകുമോ എന്നുള്ളത് ഒരു പേടിയും ഉണ്ട് അത്യാവശ്യം ഉള്ള തട്ടിപ്പും തരികിടയൊന്നും ഇല്ലാത്ത വേണ്ട നിയമപരമായിട്ടുള്ള ആപ്പുകള് അതാണ് ഞാൻ ഉപയോഗിക്കണത് അതെൻ്റെ ബാങ്കിംഗ് ആവിശ്യത്തിന് വേണ്ടി എൻ്റെ സ്വന്തം ആവിശ്യത്തിനും എൻ്റെ കുടുംബപരമായ ആവശ്യത്തിനും ഒക്കെയായിട്ടാണ് കാര്യങ്ങളറിയാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്